സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളെ പലപ്പോഴും ഒരു അത്ര വിശ്വാസ്യ യോഗ്യമായിട്ട് പലപ്പോഴും തോന്നാറില്ല കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ചില തല്പര കക്ഷികൾ അവരുടേതായ അവരുടേതായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു ഈ ഈ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി വാർത്തകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ് ഇന്ന് പലപ്പോഴും ഈ വാർത്തകളെ ഈ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പലപ്പോഴും എത്ര നാളത്തേക്കാണ് പിന്നെ ആളുകളുടെ കമൻസൊക്കെ നോക്കാറുണ്ട് എന്നിട്ട് മാത്രമാണ് ഇത് വിശ്വാസ യോഗ്യമെന്ന് അതിനെ കുറിച്ചു പുതിയ പുതിയ വാർത്തകൾ ഓരോരുത്തരും അവരവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചുള്ള വാർത്തകളാണ് പലപ്പോഴും സൃഷ്ടിക്കുക ഏതെങ്കിലുമൊക്കെ കാരണം ഒരു പക്ഷെ പീഡനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അവരോട് താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ആ വ്യക്തികളോട് താല്പര്യമുള്ളവരും ആ കുറ്റകൃത്യത്തോട് താല്പര്യമുള്ളവരും അല്ലെങ്കിൽ അവരുടേതായ ഭാഗം ന്യായികരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഈ വാർത്തകൾ വാർത്തകൾക്ക് വാർത്തകൾ സൃഷ്ടിക്കുമ്പം അതിന് അനുസരിച്ചു മാത്രമേ വാർത്തകൾ സൃഷ്ടിക്കുകയുള്ളൂ അത് ഒരു പക്ഷേ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അത് സാധാരണക്കാരായിട്ട് ആയിട്ടുള്ള ആളുകൾ അതെല്ലാം വിശ്വസിക്കുകയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്തെന്ന് മനസ്സിലാകാതെ പോവുകയും ചെയ്യുന്നുണ്ട് അത് ഒരു പക്ഷെ നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങളിൽ തന്നെയുള്ള വിശ്വാസ്യതയെ നഷ്ടപ്പെടാനായിട്ട് ഇടയുണ്ട് ആളുകൾ പലപ്പോഴും ഈ

അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒരു പണ്ട് പണ്ട് കാലത്തേക്കാൾ കൂടുതലായിട്ട് ആളുകൾ ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്ര മാത്രം വിശ്വാസ യോഗ്യമാണ് എത്ര മാത്രം ശരിയായിട്ടുള്ള വാർത്തകളാണ് എന്ന് ആളുകൾ പലപ്പോഴും പരിശോധിക്കാറില്ല അവർ കാണുന്ന വാർത്തകളെ എല്ലാം വിശ്വസിക്കുകയും അതിന് അതിനെതിരെ അതിന് അതായിട്ട് അവർ അതാണ് ശരിയായിട്ടുള്ള കാര്യമെന്ന് മറ്റുള്ളവരോടും പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട് അത് ഈ ശരിക്കുള്ള സംഭവങ്ങളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർഥ്യം എന്തെന്ന് കണ്ടെത്താനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല മറ്റേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിനെ കുറിച്ചു കൂടുതൽ അവർ കേൾക്കുന്ന പടി തന്നെ വിശ്വസിക്കുന്ന ഒരു ആളുകൾ ഉണ്ട് അപ്പം അവർക്ക് അവർക്ക് അതിൻ്റെ ഈ വാർത്തകളുടെ പ്രാധാന്യം എന്താണെന്നോ അല്ലെങ്കിൽ വാർത്തയിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള ആളുകളാരക്കെയാണ് അത് ശരിയായിട്ടുള്ള കാര്യമാണോ അതൊന്നും ആളുകൾ ചിന്തിക്കില്ല പ്രത്യേകിച്ചു കുട്ടികളും വീട്ടമ്മമാരൊക്കെ ആയിട്ടുള്ള ആ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുമ്പോൾ ഈ യൂട്യൂബിലും മറ്റ് മറ്റുള്ള ഫേസ്ബുക്കിലൊക്കെയുള്ള വാർത്തകൾ ഉള്ള വാർത്തകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള വാർത്തകൾ അവർ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അത് മാത്രം അതിനെ കുറിച്ചു അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല അവർ അത് ചെയ്യാറില്ല ആ ഒരു വാർത്ത ശരിക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്ന വാർത്തകൾ വാർത്തകൾ പത്രത്തിലോ അല്ലെങ്കിൽ ടിവിയിലോ വരുന്ന വാർത്തകളൊക്കെ അത് കറക്റ്റ് ആയിരിക്കും അതിനെ കുറിച്ചു വേറെ ഒരുപാട് ഇങ്ങനെ വാർത്താ ചാനലുകളോ അതുപോലെ വാർത്തകൾ സൃഷ്ടിക്കുന്ന ആളുകളോ അതിനുള്ള ഏജൻസികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ വാർത്തകളൊക്കെ കൃത്യമായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ വാർത്താ മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലം അതിക്രമിച്ചിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രചരിച്ചിരിക്കുന്ന ഈ കാലത്ത് ആളുകൾ എവിടെ നമ്മൾ തുറന്നു നോക്കിയാലും ഓരോരോ വാർത്തകൾ എന്നതും നമ്മളെ ഈ വാർത്തകളൊക്കെ സൃഷ്ടിക്കുന്ന ആളുകളെ സംബന്ധിച്ചു അവർക്ക് ഒരു ഇവരുടെ ചാനല് തുറക്കാനും അതുപോലെ ഇവരുടെ ചാനലിന് ആളെ കൂട്ടാനും വേണ്ടിയിട്ട് അവർ അവരുടേതായ രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കാര്യം ഒരു കാര്യത്തെ കുറിച്ചു തന്നെ ഒരു പീഡനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെ കുറിച്ചു ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് അവർ മറ്റുള്ളവരെ താല്പര്യം ഉണർത്തുന്ന രീതിയിൽ അതിന് ഹെഡിങ്ങുകൾ കൊടുക്കുകയും അത് തുറന്നു നോക്കുകയും പക്ഷേ ആ കാര്യങ്ങളൊന്നും അതിന് സംഭവിച്ചട്ടുണ്ടാവില്ല ആ അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് ജിജ്ഞാസ ഉയർത്തുന്ന രീതിയിലാണ് പലപ്പോഴും ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിന് പലപ്പോഴും അതിനെ തല കെട്ടുകളൊക്കെ നൽകുക അപ്പം ആളുകൾ അത് പ്രതീക്ഷിച്ചു ഇത് തുറന്നു കഴിയുമ്പോൾ അത് ഒരുപക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ പല തരത്തിലാണ് ഈ വാർത്തകളെല്ലാം വരിക ഒരു അപകട മരണമോ അതേ പോലെ കൊലപാതകം അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണെങ്കിലും പല തരത്തിലാണ് കണ്ട ആളുകൾ എന്തു പറയും അതിൻ്റെ സാക്ഷികൾ പറയും അതുപോലെ തന്നെ ഇതിനകത്ത് പങ്കുള്ളവർ പറയും അവരോട് താല്പര്യമുള്ള ആളുകൾ പറയും അവരെല്ലാം അവർക്ക് തോന്നുന്നത് തോന്നുന്ന രീതിയിലാണ് ഈ വാർത്തകൾ പലപ്പോഴും സൃഷ്ടിക്കുക അപ്പം അത് ഒരുപക്ഷേ ഈ വാർത്തകൾ ഇങ്ങനെ അനാവശ്യമായിട്ട് അനാവശ്യ പ്രാധാന്യം കൊടുത്ത് നമ്മൾ സൃഷ്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ വാർത്തകൾക്ക് ഒരു ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ വാർത്ത വാർത്ത ശരിക്കും വിശ്വസിക്കാനായിട്ട് ആളുകൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ വാർത്തകളൊക്കെ അത് ഇങ്ങനെയൊക്കെ വരത്തുള്ളു എന്ന് പറഞ്ഞു ആളുകളെ ഈ വാർത്തകൾ ശ്രദ്ധിക്കാതെ വരുന്നുണ്ട് സാമൂഹ്യ മാധ്യങ്ങളിൽ ലഭിക്കുന്ന വാർത്തകൾ പലപ്പോഴും എന്നെ സംബന്ധിച്ചു ഞാൻ അത് ഒരിക്കലും അതിനെ കൃത്യമായിട്ട് വിശ്വസിക്കാറില്ല വാർത്തകൾ കാണാറുണ്ട് വാർത്തകൾ ചിലപ്പോൾ വായിക്കാറുണ്ട് വാട്സഅപ്പിലും ഈ യൂട്യൂബിലൊക്കെ വരുന്ന വാർത്തകളും വാർത്താ വീഡിയോകളും വാർത്ത ചാനലുകളിലൊക്കെ വരുന്നതെക്കെ കാണാറുണ്ട് പക്ഷേ എല്ലാവരും പറയുക ഓരോ വർത്താ ചാനലുകളും പറയുക അവർ കാരണമാണ് ഇതെല്ലാം അവരാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്ത് കൊണ്ട് വന്നത് അവർ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അവരവരുടേതായ ഉയർച്ചയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അതാണ് പലപ്പോഴും ഇന്നത്തെ മാധ്യമ രംഗത്ത് നടക്കുക മാധ്യമങ്ങളാണ് ഒരു ഒരു വാർത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെറിയ ഒരു കാര്യമായിരിക്കാം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങളാണ് അത് വേണ്ട കാര്യത്തിനും വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഈ മാധ്യമങ്ങൾ അനാവശ്യവായിട്ടുള്ള സപ്പോർട്ട് അനാവശ്യവായിട്ടുള്ള വാർത്ത അതിൽ കൂട്ടിച്ചേർത്തു പൊടിപ്പും തൊങ്ങലും വച്ചു അവർ സൃഷ്ടിക്കുമ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കും അവർ അത് ജിജ്ഞാസയോടെ നോക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പരിധി വരെ വാർത്ത ചെറിയ ഒരു കാര്യം വാർത്താ പ്രാധാന്യമള്ളതാക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങൾക്ക് സാധിക്കുമെങ്കിലും മറ്റു കുറ്റകൃത്യങ്ങളും അതുപോലെയുള്ള സാമൂഹ്യ അതിക്രമങ്ങളൊക്കെ വരും സംഭവം നടക്കുന്ന കാര്യം സമയങ്ങളിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പം അത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും അത് എങ്ങനെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു ആളുകൾ ജിജ്ഞാസ ഉണർത്തുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ മറ്റ് മനുഷ്യരിൽ ഇതിനെ കുറിച്ചു അറിവില്ലാത്ത മനുഷ്യരുടെ ഇടയിലും ഇത് തെറ്റായ രീതി പ്രചരിക്കുന്നുണ്ട് അപ്പ നമ്മൾ പലപ്പോഴും ഈ വാർത്തകൾ ആളുകൾ കൂടുതൽ കുറിച്ചു ഒന്നും അവരുടെ കൈയിലുള്ള ഫോൺ ആണെങ്കിൽ ഫോൺ അല്ലെങ്കിൽ മാധ്യമം മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ ഫേസ്ബുക്കോ അതുപോലെയുള്ള വാട്സപ്പോ അതിനകത്തൊക്കെ വരുന്ന വാർത്തകൾ ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നു പറഞ്ഞു അവർ വിശ്വസിക്കും എന്തെങ്കിലും ചെറിയ കാര്യത്തെ കുറിച്ചു അത് കൂടുതലൊന്നും അറിവ് അറിവ് അവർക്ക് ഉണ്ടായി എന്ന് വരത്തില്ല അപ്പം അവർ അതെല്ലാം വിശ്വസിക്കും പിന്നീട് ആരെങ്കിലും അത് ഫേക്ക് ന്യൂസാണ് എന്നു പറഞ്ഞു മറ്റുള്ളവർ മെസേജ് ഇടുമ്പോഴായിരിക്കും അവർക്ക് അത് മനസ്സിലാവുക എങ്കിലും ആളുകളൊക്കെ ചെറിയ കാര്യങ്ങൾ പോലും വീട്ടമ്മമാർ പ്രത്യേകിച്ചു ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്താ പ്രാധാന്യം ഉള്ള കാര്യങ്ങൾ ചെറിയ ഒരു കാര്യം പെരിപ്പിച്ചു കാണിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അവർ അതിന് അനുസരിച്ചുള്ള ഹെഡിങ്ങുകൾ കൊടുത്തും അതിന് അകത്തുള്ള കാര്യങ്ങൾ അവർക്കും ഈ ഇവരുടെ ചാനലുകൾക്ക് അനുകൂലമായിട്ടും ചാനലുകളെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടു നടക്കുന്ന രീതിയിലൊക്കെയാണ് ഇവർ പലപ്പോഴും വാർത്തകൾ സൃഷ്ടിക്കുക അത് വാർത്തകൾ ആളുകൾക്ക് ഈ വാർത്തകളെ കൃത്യമായിട്ട് അറിയാൻ ആയിട്ട് അറിയാനായിട്ട് ഒരു സാധ്യത ഇല്ലാതാക്കുവാണ് അപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ പലപ്പോഴും വിശ്വാസ്യത ഇല്ലാത്ത അതിൻ്റെ വിശ്വാസ്യത പലപ്പോഴും നമുക്ക് തോന്നും പല വാർത്തകളിൽ അല്ലെങ്കിൽ പല പത്രങ്ങളിലും അതുപോലെ മറ്റു ചാനലുകളും ടിവി ചാനലുകളിലൊക്കെ ആണെങ്കിലും പല തരത്തിലായിരിക്കും ഒരു ഒരാൾ പറയുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആൾ പറയുക തങ്ങളുടെ ചാനലുകൾക്ക് കൂടുതൽ ആളുകളെയൊക്ക കാണണം അല്ലെങ്കിൽ പ്രേക്ഷകൻ ഉണ്ടാകണം അല്ലെങ്കിൽ അതിൻ്റെ ഇത് ആൾക്കാരുണ്ടാവണം എന്ന രീതിയിലാണ് ഓരോ ചാനലുകാരും വാർത്തകൾ പ്രചരിപ്പിക്കുക ഇങ്ങനെയുള്ള വാർത്തകൾ കുറച്ചു ഒരു അടിസ്ഥാാനരഹിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പം ആളുകൾ കൂടുതൽ ഈ ചാനലുകളെല്ലാം വീക്ഷിക്കും എന്ന രീതിയിലാണ് പലപ്പോഴും ഈ ചാനലുകളെല്ലാം തങ്ങളുടെ വാർത്തകൾ പ്രചരിപ്പിക്കുക അപ്പം അതൊരു പരിധി വരെ നിർത്തലാക്കുകയാണെങ്കിൽ ഈ വാർത്തകൾക്കും നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രരിചരിപ്പിക്കുന്ന വാർത്തകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കും അതുപോലെ മറ്റ് ആ കുറേ ആളുകളെ അത് കുറേ ആളുകളെ കാണാനിടയായിട്ടുണ്ട് അവരെല്ലാം വാർത്തകൾ അങ്ങനെ പലതും വരും അതൊന്നും അല്ല ശരി ശരിയായിട്ടുള്ള കാര്യം ശരിയായിട്ടുള്ള കാര്യം ആരും അവതരിപ്പിക്കുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാകാനും അതുപോലെ മറ്റു ആളുകളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഒന്നും അവതരിപ്പിക്കുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ പലപ്പോഴും ഇന്ന് ചാനലുകൾ അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കുകയും വാർത്തകൾ വാർത്തകൾ ഇടം നേടാൻ ആളുകൾക്ക് ഇഷ്ടമാണ് നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ് പറഞ്ഞും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് അഭിപ്രായങ്ങൾ പറഞ്ഞതൊക്കെ മറ്റുള്ളവരെ താറടിച്ചു കാണിക്കുന്ന ഒരു രീതി ഇന്നത്തെ രീതിയിൽ ഉണ്ട് അതുപോലെ മത മത സാമൂഹ്യ നേതാക്കളയൊക്കെ ആണെങ്കിലും ഒരു അവരെയൊക്കെ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും മതങ്ങളുടെ മതങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടും മാത്രമായിട്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ട് അത് ശരിക്കുള്ള ഒരു മാധ്യമ ധർമ്മം അല്ല അത് മറ്റുള്ള ഈ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള രീതി ആയതുകൊണ്ട് പൊതുജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള വാർത്തകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഓരോ മാധ്യമത്തിൻ്റെ കടമ അത് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പെരികി ഇരിക്കുന്ന സമയത്ത് പണ്ടു കാലങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന തരത്തിലുള്ള പത്രങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ടിവി ചാനലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്

അതിനെ കുറിച്ചു കൂടുതൽ പൊടിപ്പും തൊങ്ങലും വയ്ക്കാതെ അന്നത്തെ മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ അത് തന്നെ ആളുകൾക്ക് ഒരു ആശ്വാസമായിരുന്നു വാർത്തകൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു പക്ഷെ ഇന്ന് ഒരുപാട് ചാനലുകളും ഒരുപാട് വാർത്താ ചാനലുകളും പത്രങ്ങളുമൊക്കെ ഇറങ്ങിയ സമയം ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അത് ഒരുപക്ഷെ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു ശരിയായിട്ടുള്ള വാർത്ത എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട് അത് മാധ്യമ രംഗത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് തന്നെ പറയാൻ പറ്റും ആളുകൾക്ക് ഇതൊന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് ലഭിക്കുന്ന വാർത്തകളെ ആളുകൾ അത് ശരിയായിട്ട് കാണുന്നില്ല അത് തെറ്റാണോ അത് ഇങ്ങനെ പല വാർത്തകൾ വരുന്നുണ്ട് ഏതാണെന്ന് ശരി ഇങ്ങനെ പലതും പറയും എന്നൊക്കെ രീതിയിൽ ആളുകൾ അതിനെ കാണുന്നുണ്ട്